വയനാട് ജില്ലയില് ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗുരുവായൂർ ഉള്ളത് പോലെ തന്നെയാണ് വയനാട്ടിലും അതായത് തിരുനെല്ലി അമ്പലം എന്നു പറയും തിരുനെല്ലി അമ്പലത്തില് അഹിന്ദുക്കൾക്കൊന്നും പ്രവേശനമില്ല അവിടെ അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം അതേപോലെ ഈ ഗുരുവായൂരും അതേപോലെത്തന്നെ ഗുരുവായൂരും മുണ്ടുടുത്ത് കയറാൻ പാടില്ല ഷർട്ട് ഊരണം ഇങ്ങനത്തെ നിബന്ധനകൾ ഒക്കെയുണ്ട് അതും ഇവിടുത്തെ ഒരു ആചാരമായിട്ടാണ് കാണുന്നത് അതായത് ഇപ്പം നമ്മക്കാണെങ്കിലും തിരുനെല്ലി അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടുടുത്ത് അങ്ങനെ കേറണമെന്നില്ല നമുക്ക് പാന്റ് ഇട്ടിട്ടായാലും കയറാം പക്ഷേ ഷർട്ട് ഊരിയിട്ട് വേണം കയറാൻ അത് അവിടുത്തെ ഒരാചാരമായിട്ടാണ് കാണുന്നത് ഷർട്ട് അവിടുത്തെ ദൈവങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു ആചാരമായിട്ടാണ് കാണുന്നത് അതായത് ഷർട്ടിട്ട് പോയിക്കഴിഞ്ഞാല് നമ്മളെന്താ പറയും ദൈവത്തെ നിന്ദിക്കുന്ന പോലെയുള്ളൊരു ആചാരമായിട്ടാണ് തോന്നുന്നത് പിന്നെ അവിടുത്തെ നമ്പൂതിരിമാരെന്നു പറഞ്ഞുകഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ആൾക്കാരെപ്പോലെയാണ് അതായത് നമ്മളെന്താ പറയുക നമ്മളെയൊന്നും തൊട്ടു തീണ്ടി കൂടായ്മയൊക്കെയുള്ള ആൾക്കാരാണ് നമ്മളെ ഒന്നു തൊടുവോ ഇപ്പോ നമുക്ക് പ്രസാദമൊക്കെ തരുന്നത് ഇങ്ങനെ എറിഞ്ഞ് എറിഞ്ഞിട്ടൊക്കെയായിരിക്കും തരിക അതൊക്കെ അവിടുത്തെ ഒരാചാരമായിട്ട് തോന്നുന്നു ഇപ്പോ നമ്മള് കൊന്ത ഇട്ടിട്ട് പോയിക്കഴിഞ്ഞാലും അവിടെ കേറ്റൂല അതൊരു ആചാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാന്നു അറിയില്ല അങ്ങനയൊക്കെയുണ്ട് പിന്നെ മെയിനായിട്ടും എന്നുപറഞ്ഞുകഴിഞ്ഞാല് ക്രിസ്തുമസ് ആഘോഷിക്കാറുണ്ട് ക്രിസ്തുമസിനു എന്നു പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നടത്തുന്ന ഒരു ആഘോഷായിട്ടാണ് തോന്നുന്നത് ഉണ്ണിയേശു പിറന്നൊരു ദിവസമാണ് ക്രിസ്തുമസ് പിന്നെ കാർത്തികദീപം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാർത്തികദീപം തെളിയിക്കുക അതായത് ദീപം തെളിയിക്കുന്ന ഒരു നാളായിട്ടാണ് കാർത്തികദീപം എന്ന് പറയുക അതും ആഘോഷിക്കാറുണ്ട്